ഇപ്പോള് നമ്മള് പൊതുവേ കണ്ടുവരുന്നതാണ് നമ്മുടെ നാട്ടിലെ വിദ്യാത്ഥികളെല്ലാവരും പഠിത്തം കഴിഞ്ഞുകഴിഞ്ഞാൽ അവര് പോകുന്നതു പുറത്തേക്കാണ് പ്ലസ് റ്റു കഴിഞ്ഞാലോ ഡിഗി കഴിഞ്ഞാലോ അവരെല്ലാവരും പുറത്തേക്കു പോവും അത് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിലതിനുള്ള വരുമാനമേ അവര്ക്കു കിട്ടുന്നുള്ളൂ ഇപ്പോള് ഉദാഹരണം പറഞ്ഞാല് ഞാനിപ്പോള് പഠിക്കുന്നതൊരു സോഷ്യൽ വർക്കാണ് ഇപ്പോള് ഞാൻ ഇതിവിടെ പഠിച്ചു കഴിഞ്ഞ് എനിക്കൊരു ജോലിയില് കയറിയാല് എനിക്ക് കിട്ടാവുന്ന ശമ്പളം പന്ത്രണ്ടായിരം പതിമൂവായിരം നല്ല പണിയും ആ ശമ്പളം വച്ച് ഇപ്പോഴുള്ള ലോകത്ത് നമുക്ക് എല്ലാവർക്കുമങ്ങനെ ജീവിച്ചു പോവാൻ പറ്റണമെന്നില്ല എല്ലാവരും ഉയർച്ചയും വലിയ വലിയ കാര്യങ്ങളും വലിയ ചിന്താഗതികളുമുള്ള ആൾക്കാരാണ് അപ്പോള് അവർക്കൊന്നും ആ ശമ്പളം വച്ച് ജീവിച്ചുപോവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും പിന്ന ഇവിടെ നമ്മള് പഠിച്ച പൈസ കിട്ടണമെങ്കില് തന്നെ കുറേ വർഷം നമ്മള് പണിയെടുക്കണം അതുകൊണ്ടുതന്നെയാണ് ആൾക്കാര് പുറത്തോട്ടു പോകുന്നത് പുറത്തു പോയാല് നമുക്ക് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി സാലറി കിട്ടും നമ്മടെ നാട്ടില് ആൾക്കാർക്കു ജോലിയില്ല ഓപ്പർച്യൂണിറ്റീസില്ല അതുകൊണ്ടു മാത്രമാണ് ആൾക്കാരെല്ലാരും വിദേശത്തോട്ടു നോക്കുന്നത് ഇപ്പോള് പ്ലസ് റ്റു കഴിഞ്ഞ് കുറേ പേര് നേഴ്സിംഗ് പഠിക്കാനായിണ്ട് ജർമന് പഠിക്കാൻ നമുക്കു കാണാം അതില് കുറേ പേര് പാസ്സാവാണ്ട് അവരെ കരിയര് പോകുന്നതു കാണാം രണ്ടു വർഷമൊക്കെ അത് പഠിച്ചുജയിക്കാൻ പറ്റാണ്ട് കരിയർ മൊത്തം ഫ്ലോപ്പായി നില്ക്കുന്ന ആൾക്കാരുമുണ്ട് എൻ്റെ അറിവില്ത്തന്നെ അങ്ങനെയുള്ള ഒരുപാട് പേരുകള് ആൾക്കാരുണ്ട് നമ്മള് എപ്പോഴും നമ്മുടെ നാട്ടില് നമ്മുടെ ആൾക്കാര്ക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം പക്ഷെ പുറത്തുനിന്നുവരുന്ന ആൾക്കാര്ക്കു ജോലി കൊടുക്കുമ്പോള് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റീസാണ് പോകുന്നത് മൊത്തം അതുകൊണ്ടു ദോഷം നമ്മടെ നാടിനു തന്നെയാണ് നമ്മടെ നാടിന്ന് നല്ല രീതിക്ക് മൈഗ്രേഷൻസ് നടക്കുന്നുണ്ട് പുറത്തേക്കിപ്പോള് ഇപ്പോള് ഞാൻ തന്നെ പഠിച്ചുകഴിഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാല് പുറത്തോട്ടു പോകണം ആ ഒരു ചിന്താഗതി നില്ക്കുന്ന ഒരാളാണ് അതിനു കാരണം ഇപ്പോള് ഇവിടെ കഴിഞ്ഞ് ഇതിൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ പി ജി പഠിച്ചു കഴിഞ്ഞാല് പി ജി പഠിച്ചിട്ട് ഇവിടെ വലിയ സാലറിയുള്ള ജോലിയോ എല്ലാവർക്കും ഓപ്പർച്യൂണറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള് പുറത്തോട്ട് പോകുന്നത് നമുക്കറിയാവുന്ന ആൾക്കാരിവിടെ പി ജി കഴിഞ്ഞ് പഠിച്ചിട്ടും അവർക്കു ജോലിയില്ല അവർക്കിവിടെ മൂന്നു വർഷം പഠിച്ച് രണ്ടു വർഷം പഠിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ പുറത്ത് ജോലി കിട്ടുന്നുള്ളൂ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ നമ്മളിവിടെ രണ്ടു വർഷം എക്സ്പീരിയൻസിനു വേണ്ടി നില്ക്കുന്നതിനെക്കാളും നല്ലത് ഡിഗ്രി കഴിഞ്ഞാല് നമ്മള് പി ജി എടുക്കാൻ വേണ്ടി പുറത്തേക്കു പോകുന്നതല്ലേ ഏറ്റവും നല്ലത് അതുകൊണ്ടു മാത്രമാണ് ആൾക്കാര് അങ്ങനെയുള്ള ഓപ്പർച്യണിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ട് പോകുന്നത് ഇപ്പോള് കൂടുതൽ ആൾക്കാരും ഒരു ഡിഗ്രിക്ക് വേണ്ടിയാണ് കോളേജില് വരുന്നത് ഇന്നതു പഠിക്കണമെന്നൊന്നും ഇല്ല അവർക്കൊരു ഡിഗ്രി വേണം കാരണം ഡിഗ്രി ഉണ്ടെങ്കിലേ പുറത്തോട്ട് പോവാൻ പറ്റുകയുള്ളൂ ചില സ്ഥലത്ത് പിന്നെ ചില ആൾക്കാർക്ക് പ്ലസ് റ്റു വേണം കാരണം പ്ലസ് റ്റു ഉണ്ടങ്കിലേ പുറത്തോട്ടു പോകാൻ പറ്റുകയുള്ളൂ പിന്നെ ജോലി എല്ലാവരും നോക്കുന്നത് ജോലി ശമ്പളം എന്നുവച്ചാല് നമ്മടെ നാട്ടിലിപ്പോള് ഏറ്റവും കൂടുതൽ നടക്കുന്നതു ശമ്പളമാണ് ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല പൈസയാണ് എല്ലാവർക്കും പ്രധാനം ഇവിടെ കുറേ പണിയെടുത്തിട്ട് ഒമ്പതിനായിരം പതിനായിരം രൂപയൊക്കെ ശമ്പളം വാങ്ങാനാണെങ്കില് ആരും ഇവിടെ നില്ക്കില്ല അതുതന്നെയാണു പ്രശ്നം ഇപ്പോള് ഒരുപാട് പേര് കുറേ നേരം പണിയെടുത്ത് മറ്റേ ലോജിസ്റ്റിക്സ് ആയാലും അതൊക്കെ ചെയ്യുന്നവരുണ്ട് നമ്മടെ നാട്ടില് അവർക്കു കിട്ടുന്ന സാലറി പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയാണ് പക്ഷെ അവർക്ക് വരുന്ന വർക്ക് പ്രഷറെന്നു വച്ചുകഴിഞ്ഞാല് അവരുടെ ഒരു ഡെയിലി ലൈഫ് തന്നെ പോകും ഒരു വീട്ടില് രാത്രി വന്നവരെയും അവര്ക്കു വരെ ട്രാൻസ്പോർട്ടേഷനോ അങ്ങനെ എല്ലാ കാര്യങ്ങളുമുണ്ടെങ്കില് അതിൻ്റെ അതിന് ഇടപെടാൻ നില്ക്കണം അതൊക്കെ എന്നുവച്ചാല് അതുകൊണ്ടുതന്നെ അവര് പുറത്തുപോവും അവർക്ക് ഇവിടെനിന്നു പ്രൊമോഷൻ കിട്ടി പുറത്തോട്ട് പോയിക്കഴിഞ്ഞാല് അവർക്കു കിട്ടുന്ന സാലറി നയ്ൻറ്റിൻ തൗസൻറ്റും എയ്റ്റീൻ തൗസെൻ്റെുമൊക്കെയാണ് അപ്പോള് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റൂല്ല പുറത്തോട്ട് പോകുന്നതിനു നമ്മുടെ നാട് വളരുകയുമില്ല പുറം രാജ്യങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും നമ്മടെ നാട് വളരണമെങ്കില് ആൾക്കാര് മോഡേണായിട്ട് ചിന്തിക്കണം അല്ലെങ്കില് ആൾക്കാര് അറ്റ് ലീസ്റ്റ് ജോലിയെങ്കിലും കൊടുക്കണം ഇപ്പോള് നമ്മള് നോർമല് കാണുന്നതാണ് ഇപ്പോള് ലുലു അവിടൊക്കെ വല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കില് ആൾക്കാര് പോകുന്നത് മറ്റേ റോഡിൻ്റെ പുറത്തുവരെയും ക്യൂ ആയിരിക്കുകയുള്ളൂ ആൾക്കാര് ജോലിയില്ലാത്തവര് ജോലിക്കു വേണ്ടി വരിനില്ക്കുന്നത് അതു കാണുമ്പോള് നമുക്കു ശരിക്കും സങ്കടം തോന്നും കാരണം ഈ ഡിഗ്രി ബി കോം എം കോം ഒക്കെ പഠിച്ച ആൾക്കാരായിരിക്കോള്ളൂ അവിടെ വന്ന് ജോലിയില്ലാണ്ട് വന്ന് ക്യൂ നില്ക്കുന്നത് അവരുടെയൊക്കെ ഒരവസ്ഥ ആലോചിച്ചു നോക്കിയേ ഇത്രയും വർഷം കഷ്ടപ്പെട്ടിരുന്നു പഠിച്ചിട്ട് ഒരു ജോലി കട്ടാൻ കിട്ടുന്നില്ലെന്നുവച്ചാല് അതൊക്കെ വലിയ വിഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോള് നമ്മള് ഇപ്പോള് ഞാനൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോള് എനിക്ക് പഠിച്ചുകഴിയുമ്പോള് ഞാനിതു പഠിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരെയ്മുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടണം ഇങ്ങനെ നോക്കണം വീട്ടുകാരെ നോക്കണം അതിനൊക്ക വേണ്ടി പൈസ കിട്ടണമെങ്കില് നമ്മള് പുറത്തോട്ടുതന്നെ പോകണം അല്ലെങ്കില് ഇവിടെ നമ്മള് അത്രയും ഹൈ പൊസിഷനില് കയറണം പക്ഷെ ഇവിടെ ഹൈ പൊസിഷനില് കയറണമെങ്കില് അതിനനുസരിച്ചുള്ള പിടിപാടുകളും അതുള്ള കാര്യങ്ങളും വേണം നല്ലൊരു കമ്പനിയിൽ അതാണ് ആൾക്കാരെല്ലാവരും പുറത്തു പോയി പഠിക്കാൻ താല്പര്യപ്പെടുന്നത് ഇപ്പോള് ഇപ്പോള് കൂടുതൽ ആൾക്കാരും തെരഞ്ഞെടുക്കുന്നത് ലോജിസ്റ്റിക്സ് ഐ ടി ഐ ടി ഫീൽഡ് അങ്ങനെയുള്ള മേഖലകളിലാണു കൂടുതൽ ആൾക്കാരും പോകുന്നത് പിന്നെ ഡിഗ്രി കഴിഞ്ഞ് അതിൻ്റെ പി ജി എടുത്ത് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുക അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് അതിൻറ്റേതായിട്ടുള്ള ജോബ് കണ്ടെത്തുക അങ്ങനെയാണ് ആൾക്കാരൊക്കെ ചെയ്യുന്നത് നോർമലി പാർടൈമായിട്ട് ചെയ്യുന്നവരായാലും ഓരോരുത്തരും അവരുടെ വീടുകളുടെ സാഹചര്യം വീട്ടുകാരെ രക്ഷപ്പെടുത്താനുമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ നാട്ടില് നാലു വർഷത്തെ കോഴ്സ് കൊണ്ടുവന്നു പി ജി വാല്യു ആയിട്ടുള്ള അതൊരു നല്ല കാര്യമാണ് നാലു വർഷത്തെ പി ജി ഡിഗ്രി കൂടി ഒരുമിച്ചു കിട്ടുകയെന്നുവച്ചാല് നല്ലൊരു കാര്യമാണ് അപ്പോള് മൈഗ്രേഷൻസ് കുറയും പക്ഷെ അതു കഴിഞ്ഞാലും ആ പിള്ളേർക്ക് ഇവിടെ ജോലി വേണം അല്ലാണ്ട് കാര്യമില്ല ആ ജോലി ഇല്ലാത്തതുകൊണ്ടാണ് അവര് പുറത്തോട്ടു പോവും നാലു വർഷ കോഴ്സ് കഴിഞ്ഞാലും അവര്ക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കില് അവര് പുറത്തോട്ടു പോവും അതില് നമുക്ക് ആരെയും കൂറ്റം പറയാൻ പറ്റില്ല അവരുടെ സാഹചര്യമാണ് പക്ഷെ നമ്മുടെ നാട് അതിനനുസരിച്ച് ഡൗണായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കഴിവുള്ള പിള്ളേരാണ് പുറത്തു പോയി കഴിവ് കാണിച്ച് പൈസയുണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലാ കഴിവ് കിട്ടുന്നില്ല